ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞാൽ നല്ല നല്ല സംവിധാനങ്ങളാണ് അഭിപ്രായം പറഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഒരുപാട് പഠനഭാരം കുഞ്ഞുങ്ങൾക്കുണ്ട് എൽ കെ ജി യു കെ ജി പോലും അവർക്ക് പറ്റത്തില്ലാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ നല്ലതാണ് എന്നു പറഞ്ഞാലും കുട്ടികൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അവർക്കത് ഭാരം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം വിദേശരാജ്യങ്ങളിലെപ്പോലെ ആണെങ്കിൽ വിദേശരാജ്യങ്ങളിലൊന്നും ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന അക്ഷരങ്ങൾ പഠിപ്പിക്കുകയെന്ന് അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കും പക്ഷേ ഇതുപോലെ ഒരുപാട് തിയറികളോ മറ്റുള്ള അതൊന്നും പഠിപ്പിക്കുന്നില്ല അവരെയൊക്കെ പുറത്തുകൂടിയിറക്കി ഇപ്പോൾ എൽ കെ ജി പഠിക്കുന്ന കൊച്ചിനെയാണെങ്കിലും അക്ഷരങ്ങൾ പഠിപ്പിക്കും പിന്നെ പുറത്തിറങ്ങി ഓരോ സ്ഥലങ്ങൾ കാണിക്കുകയും ഇപ്പോൾ പുഴ എങ്ങനെ ഒഴുകുന്നു മരത്തിൽ എങ്ങനെ കായ ഉണ്ടാകുന്നു ഈ പക്ഷികളെങ്ങനെ പറക്കുന്നു അങ്ങനെയുള്ളതൊക്കെ പ്രകൃതിൽത്തന്നെ കൊണ്ടുപോയി കാണിച്ച് അവരെ മനസ്സിലാക്കുന്ന രീതിയാണ് അപ്പോൾ പിള്ളേർക്കത് ബോറടിക്കുന്നില്ല അതൊരു നല്ല സംസ്ക്കാരമായിട്ട് എനിക്ക് തോന്നിയിരുന്നു അതു കണ്ടപ്പം അതുപോലെ നമ്മുടെ ഇവിടേയും പിള്ളേരെ ഈ ഭാരപ്പെട്ട ബാഗും ചുമന്നുകൊണ്ടുപോകുന്ന കാണുമ്പം സങ്കടം തോന്നാറുണ്ട് ഞെക്കി കുത്തി വണ്ടിയിലും കയറ്റിക്കൊണ്ടുപോകുന്ന വളരെ കഷ്ടപ്പാടാണ് അത് പിള്ളേരെ ഒന്ന് ഓടി കളിക്കാനും മറ്റുള്ള കളികളിലൂടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതായിരിക്കും ഇച്ചിരികൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു സർക്കാറിന് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ സ്പോർട്സുകൾ മറ്റുള്ള കളികൾ ഞാൻ പറഞ്ഞല്ലോ തയ്യൽ പിള്ളേർക്ക് ഗുണകരമായിട്ടുള്ളതും കൂടി സർക്കാർ ചെയ്തു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഗുണകരം എന്നു പറയുമ്പം അതിനകത്തൊരു തൊഴിൽ എന്തെങ്കിലും ചെയ്യാൻ ഇപ്പോൾ തയ്യൽ തന്നെ അല്ലേ ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സ് അല്ലേ പാചകം അങ്ങനെ പല രീതിയിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കത് ഭാവിയിൽ ഒരു ഇത് പിന്നെ ഒരു പ്ലസ്ടു ഒക്കെ കഴിയുമ്പം തന്നെ കേറ്ററിങ്ങിൻ്റെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് പിള്ളേർക്ക് ഒരു കേറ്ററിംഗ് സർവ്വീസ് നടത്താം തയ്യൽ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു മെഷീനും കൂടി ഉണ്ടെങ്കിൽ അവർക്കത് ഒരു വരുമാന മാർഗ്ഗമാകും അതുപോലെ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കോഴ്സുകളുണ്ട് അതൊക്കെ ഈ ഞാൻ പറഞ്ഞിട്ട് വിദ്യാഭ്യാസം പ്ലസ്ടു വരെ ആവുമ്പോഴത്തേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി പഠപ്പിക്കണമെന്നുള്ളതാണ് എനിക്ക് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത് സർക്കാർ അതു ചെയ്യാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ കുറേക്കൂടിയൊക്കെ ഒരു എല്ലാവർക്കും ജീവിക്കാനായിട്ടൊരു ജീവിതമാർഗ്ഗം കൂടി വിദ്യാഭ്യാസം വഴി ചെയ്തു കൊടുക്കണം പണ്ടത്തെപ്പോലെ ഓരോ മഹാന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് കാര്യമില്ല കുറേയൊക്കെ അങ്ങനെ നന്നായി ചെയ്യാനും കൂടി പരിശ്രമിക്കണം

ഇടുക്കിയിലെ നദി ഇടുക്കിയിലുള്ള നദികൾ ഏതാണ് ഇതിൽ കാണുന്നത് ഇത് സ്റ്റോപ്പ് ആക്കണമെങ്കിൽ എവിടെയാണ് ഇപ്പോൾ